ആ ശരത്തേ നിങ്ങൾ എവിടെ എത്തി തിയേറ്ററിൽ എത്തിയോ എടാ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു ആൾക്ക് ഒന്നിന് ഇരുന്നൂറ് വെച്ചിട്ട് കേട്ടോ ആ ഒരാൾക്ക് ഇരുന്നൂറ് വെച്ച് ഏ സിയാണ് ബുക്ക് ചെയ്തത് ആ നമ്മൾ ആറ് പേരില്ലേ അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ് വെച്ചിട്ട് ആ ഞാൻ ഫണ്ട് ഒന്ന് എനിക്ക് ജി പേ ചെയ്ത് തരണേ വേറെ ഫണ്ട് ഇല്ലടാ അതുകൊണ്ടാണ് ആ നിങ്ങൾ അവിടെ നിൽക്ക് ഞാൻ ഇതാ നിങ്ങൾ അവിടെ എത്തിയില്ലേ തിയേറ്ററിൽ എത്തിയില്ലേ ആ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഞാൻ ഇത് എടാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇപ്പം എത്തും സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എ വൺ എ ടു അങ്ങനെ അങ്ങനെ ആറു പേർക്കും ആ ആറു പേർക്കും ബുക്ക് ചെയ്തിട്ടുണ്ട് അബി വരാമെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നോ ആ അവിടെ നിൽക്കാൻ പറ ഞാൻ എടാ ഒരു ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എത്തും ആ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വരും ആ ഓ സിനിമ തുടങ്ങുന്നതിന് മുൻപ് എന്തായാലും വരുമെടാ

ഓ സിനിമ തുടങ്ങുന്നതിന് മുൻപ് എന്തായാലും എത്താം ഉറപ്പായിട്ട് എത്തും

ആടാ വേഗം വരാം വേറെ പൈസ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ആ ഫണ്ടൊക്കെ എടുത്ത് വയ്ക്ക് കേട്ടോ അല്ലെങ്കിൽ ഇൻഡ്രവെല്ലിന് പോപ്കോൺ മേടിക്കാൻ പോലും ഉണ്ടാവില്ല ആ പൈസയ ഒക്കെ എടുത്ത് വെക്ക് ഓക്കെ ഡാ ഞാൻ ഇതാ എന്നാൽ ഇപ്പം ഇറങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദ അവിടെ എത്തി